കോഴിക്കോട് ജില്ലയിലെ ആൾക്കാരുടെ സംസാരം സംസാരം ഭാ ഓരോ ഭാഗത്ത് ഓരോ പ്രദേശത്തുള്ളവരുടെ സംസാരം തമ്മിൽ കുറേ വ്യത്യാസമുണ്ട് ഈ കോഴിക്കോട് ജില്ലയിലുള്ളവരുടെ സംസാരമെന്നു പറഞ്ഞാൽ മുസ്ലിംസിന്റെയാണെങ്കിൽ വേറൊരു ഭാഷയാണ് ജാതികൾ തമ്മിലോ ഗോത്രങ്ങളോ ഭാഷകളോ സംസ്ക്കാരങ്ങളോ ഇവർ തം ഇവരായിട്ട് ഒരു സാമ്യമായ ബന്ധമൊക്കെയുണ്ട് സംസ്കാരമെന്നു പറഞ്ഞാലും സംസ്കാരവും എല്ലാം ഇവർക്കുണ്ട് എല്ലാ സ്ഥലത്തുള്ള പോലെത്തന്നെയാണ് കോഴിക്കോടും ഭാഷയ്ക്കു ചെറിയൊരു മാറ്റമുണ്ടെന്നല്ലാതെ വേറൊരു ഇതുമില്ല ജില്ലയിലും നമ്മുടെ ജില്ലയിൽ ഇപ്പം ഭാഷകളൊക്കെ മാറുന്നുണ്ട് അത് ഓരോ ജില്ലയിലേയ്ക്ക് എത്തുമ്പോൾ ഓരോ ഭാഷകളാണ് അത് അതങ്ങനെത്തന്നെയാണ് ഉള്ളത് വയനാട് മലപ്പുറമാണെങ്കിൽ വേറൊരു ഭാഷ അമേരിക്ക അവിടെയൊക്കെ വേറൊരു ഭാഷയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഭാഷയുണ്ട് ഹിന്ദി സംസാരിക്കുന്ന ഭാഷയുണ്ട് മലയാളം സംസാരിക്കുന്ന ഭാഷയുണ്ട് അറബ് സംസാരിക്കുന്നൊരു ഭാഷകളുണ്ട് ഭാഷകളുണ്ട് അതേപോലെത്തന്നെയാണ് കോഴിക്കോട് ജില്ലയിലും പ്രത്യേകതരം ഭാഷകളൊന്നുമില്ല